എനിക്ക് കൂടുതലും മെലഡി സോങ്ങ്സാണ് ഏറ്റവും ഇഷ്ടം എന്താന്നുവച്ചുകഴിഞ്ഞാല് നമുക്കെപ്പോഴും ഒരു റിഫ്രഷ് ചെയ്തു തരും നമുക്ക് മെലഡി സോങ്ങ്സ് ഇപ്പോള് നമുക്ക് എന്തേലും ഒരു ചെറിയ പ്രശ്നങ്ങളോ വിഷമങ്ങളൊക്കെ വന്നിരിക്കുമ്പോള് നമ്മള് മെലഡി സോങ്ങ്സ് കേള്ക്കുന്നത് ഭയങ്കര ഒരു എസ്പെഷ്യലി പാട്ടിനെ സ്നേഹിക്കുന്നൊരാളാണെങ്കിൽ ശരിക്കും നല്ലൊരിതൊക്കെ കിട്ടാറുണ്ട് എന്നാല് നമ്മുടെ ഒരുപാട് മെലഡി സോങ്ങ്സുണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയ സിനിമകളിലൊക്കെ നല്ല ഫീല് വരുന്ന സിനിമാ സോങ്സുണ്ട് അപ്പോള് എനിക്ക് കൂടുതലും അങ്ങനത്തെ മെഡലി മെലഡി സോങ്സിനോടാണ് ഏറ്റവും കൂടുതല് താൽപ്പര്യം പിന്നെ എനിക്ക് സിനിമാറ്റിക് സോങ്ങ്സുണ്ടല്ലോ ഈ ഡപ്പാംകൂത്ത് സോങ്ങ്സൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമാണ് പക്ഷേ അതൊക്കെ എനിക്കിങ്ങനെ പബ്ലിക് പ്ലേസില് കേള്ക്കാനാണ് ഏറ്റവും കൂടുതലിഷ്ടം കാരണം നമുക്ക് വൈബടിക്കാൻ തോന്നും അല്ലാതെ ഞാൻ ഒറ്റക്കിരിക്കണ ടൈമായിക്കോട്ടെ അങ്ങനെയൊക്കെ ഞാൻ കൂടുതലും മ്യൂസിക്കായിട്ട് സ്പെൻഡെയ്യുമ്പോള് ഇങ്ങനത്തെ മെലഡി സോങ്ങ്സൊക്കേയിട്ടാണ് കൂടുതല് കേള്ക്കാറ് അതില് എനിക്ക് മലയാളം മെലഡി സോങ്സാണ് കൂടുതലിഷ്ടം ഹിന്ദി തെലുങ്ക് അങ്ങനെയുള്ള സോങ്ങ്സിനെക്കാളും കൂടുതലെനിക്ക് മലയാളത്തിലുള്ള മെലഡിയാണിഷ്ടം പിന്നെ എനിക്ക് പോയംസ് കേള്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പോയംസ് ശരിക്ക് ഇങ്ങനെ നല്ല സ്ട്രെങ്തെൻ സൗണ്ടിലൊക്കെ പോയംസ് പാടുന്നത് കേള്ക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നങ്ങനെ എന്താണു പറയുക ആ അത്യാവശ്യം എല്ലാ മ്യൂസിക്സും ഇഷ്ടമാണ് കാരണം മറ്റേതാണ് നമുക്ക് നല്ലൊരു ഫീലും മെലഡി സോങ്ങ് കേള്ക്കുമ്പോള് നല്ലൊരു ഫീലും റിഫ്രഷിങ്ങുമൊക്കെ തോന്നും